കഴിഞ്ഞ മാസം ഞങ്ങളുടെ കല്യാണം ആയിരുന്നല്ലോ പെരുമ്പാവൂർ സീമാസ് ഓഡിറ്റോറിയത്തില് വച്ച് അപ്പോൾ ഇനി അധികം വൈകാതെ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ പ്ലാന് അപ്പോൾ അവിടെ ജോലി നോക്കുന്നുണ്ട് അപ്പോൾ അതിനു മുൻപായിട്ട് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടേക്കുള്ള മൂവ് ചെയ്യാനുള്ള കാര്യങ്ങള് നിയമപരമായ കാര്യങ്ങള് നോക്കിയപ്പോൾ ഒരേ സര്നെയിം ഉള്ളതാണ് നല്ലതെന്ന് ഞങ്ങള് മനസ്സിലാക്കി അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ഒരു ഈ അടുത്ത് തന്നെ സര്നെയിം മാറ്റിയായിരുന്നു അപ്പോൾ ഇനി പോണേൻ്റെ മുന്പ് പാസ്പോര്ട്ടിലും ഈ മാറ്റിയ സര്നെയിമിന്റെ കാര്യം കാണിക്കണം എന്നാലാണ് വാലിഡ് ആവുകയുള്ളൂ ഇപ്പോൾ ഇനി അതിനെ കുറിച്ചുള്ള കാര്യങ്ങള് അന്വേഷിക്കണം അപ്പോൾ ഒന്ന് ഇപ്പഴ് കറൻലി ഞാന് കേട്ടത് അനുസരിച്ച് മാരീജ് സര്ട്ടിഫിക്കറ്റും പിന്നെ ഒരു ഫോട്ടോയും പിന്നെ കറൻ്റ് ഉള്ള ഓള്റെഡി ഉള്ള പാസ്പോര്ട്ടും മതി എന്നാണ് അറിഞ്ഞത് മാറ്റാനായിട്ട് ഇപ്പം എലിജിബിലിറ്റിക്ക് ആയാലും മാരീജ് സര്ട്ടിഫിക്കറ്റ് മതിയാകും അപ്പോൾ ഇനി ഇപ്പം ഇതുവച്ചിട്ട് ഫോം ഫില്ല് ചെയിതിട്ട് പാസ്പോര്ട്ട് സേവാ കേന്ദ്രത്തിൽ സബ്മിറ്റ് ചെയ്താൽ മതിയെന്ന് തോന്നുന്നു ഇപ്പോൾ ഇതിനെ കുറിച്ച് ഇനി കൂടുതൽ ഡീറ്റൈലായിട്ട് അന്വേഷിച്ച് അറിയണം